ആരോഗ്യം നിലനിർത്തുക എന്നത് ഭക്ഷണത്തോടെ മാത്രം ക്രമീകരിക്കാൻ പറ്റുള്ളൂ നല്ല ഭക്ഷണം നല്ല വായു നല്ല ജലം എന്നിവ എന്നിവ ഉറപ്പാക്കുക എന്നു തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നിലനിർത്താൻ ഏറ്റവും വേണ്ടത് കൂടാതെ നമ്മുടെ ശരീരത്തിനാവശ്യമായ എക്സർസൈസ് അഥവാ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുക രാവിലെ എണീച്ച് ഓടുക ഇങ്ങനത്തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുക നാടൻ വഴികളായിട്ടൊന്നുമില്ല നാടൻ ഭക്ഷണം കഴിക്കുക നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വീട്ടിൽത്തന്നെ ഉണ്ടാക്കുക പുറമെ നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഭക്ഷണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കുക്ക് ചെയ്തു കഴിക്കുകയും ശരീരത്തിനു വേണ്ട വ്യായാമം നൽകുകയും ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ശരീരത്തിൻ്റെ എമ്പത് ശതമാനവും വെള്ളമാണ് വെള്ളം നന്നായി കുടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ മറ്റാഹാരങ്ങൾ കഴിക്കുകയും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുകയും നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക